സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കേരളത്തിൽ എവിടെ ഒക്കെ ഉണ്ട്

ആ നമുക്ക് ഏതെങ്കിലും നല്ല എൻറ്റെ അച്ഛനെ കാണിക്കാൻ വേണ്ടി ആയിരുന്നു ഏതെങ്കിലും നല്ല ഡോക്ടർമാരുള്ള ഹോസ്പിറ്റല് തന്നെ വേണംന്ന് വിചാരിച്ചിട്ടായിരുന്നു

അതേലേ മെഡിക്കൽ കോളേജ് മാനന്തവാടീലല്ലേ അത് അച്ഛന് സുഖമില്ല അച്ഛനെ കാണിക്കാൻ വേണ്ടിയാണ് കുറെ ആയി അച്ഛൻ വന്നിട്ട്

ആ ആ ഹാ പനിയാണ് ഇടവിട്ടിടവിട്ട് പനിയാണ് പനി മാറുന്നേ ഇല്ല അതുകൊണ്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്

ആ ആ ആ എന്നാൽ പിന്നെ ആ ആ ആ ആ എന്നാൽ പിന്നെ അവിടെ കാണിക്കാമല്ലേ നല്ലതാണെങ്കിൽ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ എന്നാൽ ആയിക്കോട്ടെ എന്നാൽ അവിടെ കാണിക്കാം ആ ആ ആ ആ ആ ആ എവിടെ മിംസിൽ തന്നെയാണോ ആ ആ

അപ്പം നിങ്ങൾ തന്നെ നിങ്ങളെ വിളിച്ചാൽ നിങ്ങളെ വിളിച്ചാൽ റെഡി ആക്കി തരൂല്ലേ ആ ആ എന്നാൽ ശരി ആയിക്കോട്ടേ